ഹരിതവും വൃത്തിയുള്ളതുമായ പരിസ്ഥിതി സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാൽ എറ്റവും മനോഹരമായ അതായത് സഞ്ചാരികളെത്തുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും തന്നെ നമ്മൾ ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് എറ്റവും ഇത്രയും മനോഹരമായ സ്ഥലത്ത് സഞ്ചാരികളെത്തുന്നുണ്ടെങ്കിൽ ൽ അവിടെ ടൂറിസ്റ്റിൻ്റെ മേലധികാരികൾ അവിടെ കേമറ സ്ഥാപിക്കപ്പെടുകയും സ്ഥാപിപ്പിക്കേണ്ടതുണ്ട് ആരെങ്കിലും ആ മനോഹരതയെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടെ പിഴ ഈടാക്കേണ്ടതും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ദിവസവും അവിടെ വൃത്തിയാക്കാൻ ആളുകളേ

സ്ഥാപിക്കുക എന്നത് വളരെ ഒരുപക്ഷേ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം എന്നാൽപോലും ഒര് ആഴ്ചയിലെങ്കിലും ആ മനോഹരമായ സ്ഥലങ്ങളെ വൃത്തിയാക്കപ്പെടേണ്ടതാണ് അതുപോലതന്നെ ക്യാമറയിലൂടെ ആരെങ്കിലും അവിടെ മാലിന്യങ്ങൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പിഴ ഈടാക്കേണ്ടതുമാണ് അതുമാത്രമല്ല വളരെ മനോഹരമായ നദിയിലൊക്കെ മാലിന്യങ്ങൾ വെറുതെ വലിച്ചെറിഞ്ഞ് പോകുന്നതായിട്ട് കാണാം ഇതിനൊക്കെ ഉടനെ ഉടനെ നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് പേടിച്ചിട്ടെങ്കിലും ആവർത്തിക്കാതെ നിക്കും ഒന്നല്ലേ രണ്ടല്ലേ എന്ന് നമ്മള് പറഞ്ഞ് അത് മൈൻഡ് ചെയ്യാതെ നിന്നിട്ടുണ്ടങ്കിൽ ആളുകളതാവർത്തിച്ചുകൊണ്ടേയിരിക്കും